നമ്മുടെ മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷ അംഗീകാരം ലഭിച്ച ഒരു ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് സ്കൂളുകളിൽ കൂടുതലും ഇപ്പോൾ മലയാളഭാഷ ഉപയോഗിച്ച് വരുന്നുണ്ട് മലയാളം മീഡിയം സ്കൂളുകള് ഉള്പ്പെടെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മലയാളം ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികൾ മലയാള ഭാഷ ഭാഷയിൽ പഠിച്ചു വളരണം അവരുടെ കമ്മ്യൂണികേഷൻ മലയാളത്തിലൂടെയും ആവണം അവരുടെ മാതൃഭാഷയും മറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് മലയാള ഭാഷ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ശ്രേഷ്ഠഭാഷ പദവി ലഭിച്ചിട്ടുണ്ട് എന്നാൽ തന്നെയും പഠിച്ച് എടുക്കാൻ വളരെയധികം എളുപ്പമാണ് പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ആണെങ്കിൽ തന്നെയും കേരളത്തിലെത്തുകയും വന്നിട്ട് നമ്മുടെ മലയാള ഭാഷ പഠിച്ച് ഈസിയായിട്ട് പഠിച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയുള്ളതും എഴുതുവാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു മലയാള ഭാഷയാണ് നമ്മുടെ ഭാഷ അതുപോലെ തന്നെ മറ്റ് ഭാഷകളുമായും മലയാള ഭാഷ ബന്ധമുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തമിഴ് ഭാഷയും മലയാളവും തമ്മിലും അഭേദ്യമായ ബന്ധമുണ്ട് സംസ്കൃതവുമായും ബന്ധമുണ്ട് ഇതിലേക്കുള്ള വാക്കുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ മലയാളികൾക്ക് ആണെങ്കിലും തമിഴ് പറഞ്ഞാൽ മനസ്സിലാകും തമിഴ് ആൾക്കാർക്ക് ആണെങ്കിലും നമ്മുടെ മലയാളം പറഞ്ഞാലും മനസ്സിലാകും ഇത് ഭാഷ തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത് പല വാക്കുകളും തമ്മിൽ മിക്സ് ചെയ്താണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് വളരെയധികം നമ്മുടെ ഭാഷയിൽ വളരെയധികം സാഹിത്യ കൃതികളുണ്ടാവുന്നുണ്ട് വളരെയധികം അവാർഡുകൾ ലഭിച്ച വളരെയധികം സാഹിത്യ കൃതികളുണ്ട് പുതിയ എഴുത്തുകാർ ഒരുപാട് കടന്നുവരുന്നുണ്ട് അവരെല്ലാം തന്നെ അവരുടെ ഭാഷ അഭിരുചി കാരണമാണ് അവർക്ക് ഈ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികളെയും മാതൃഭാഷ പഠിപ്പിക്കാം അവരേയും അതിൽ നിന്ന് ഒഴിച്ച് നിർത്തരുത് മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ അവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും നമ്മൾ പറയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ അത് മനസ്സിലാക്കി കൊടുക്കുകയും അവരെക്കൊണ്ട് മലയാളഭാഷ പറയിപ്പിക്കുകയും ചെയ്യുക പറയാനും എഴുതാനും വായിക്കാനും അവരെയും പഠിപ്പിക്കുക